ചായ ഉണ്ടാക്കാമെന്ന് വച്ചാൽ ആദ്യം നമ്മൾ അടുപ്പ് കത്തിക്കണം പാത്രം വയ്ക്കണം കുറച്ച് വെള്ളമൊഴിക്കണം എന്നിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം അതു കഴിഞ്ഞ് വെള്ളം തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇടുക ചായപ്പൊടി ഇട്ടാൽ കട്ടൻ ചായയാവും പിന്നെ അത് കഴിഞ്ഞ് അത് തിളയ്ക്കുമ്പോൾ പാൽ തിളപ്പിച്ചു വച്ച പാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ ചായയാവും